പാചകം ചെയ്യുമ്പോൾ ഞാൻ എടുക്കുന്ന മുൻകരുതലുകൾ പാചകം ചെയ്യുന്നതിന് മുമ്പ് മുടിയെല്ലാം ഈരി പൊക്കി കെട്ടി മുകളിൽ വയ്ക്കുക കാരണം പാചകം ചെയ്യുമ്പോൾ മുടി ഭക്ഷണത്തിൽ വീഴാണ്ടിരിക്കാൻ ശ്രദ്ധിക്കണം അതിനു ശേഷം കൈ എല്ലാം വൃത്തിക്ക് കഴുകി പച്ചക്കറി എന്താണോ ഭക്ഷണം ഉണ്ടാക്കേണ്ടത് അതിന് വേണ്ട ആവശ്യമായിട്ടുള്ള പച്ചക്കറികളും സാധനങ്ങളും പൊടികളുമെല്ലാം അടുത്ത് തന്നെ എടുത്ത് വയ്ക്കുക അതിനു ശേഷം കൈ മുറിയാതിരിക്കാൻ ഫിംഗർ ക്യാപ്പ് പ്രത്യേകം ഇടാൻ ശ്രദ്ധിക്കണം അതിന് ശേഷം ഭക്ഷണം തയ്യറാക്കുന്നതിന് മുമ്പ് ഗ്യാസെല്ലാം കണക്റ്റാണോ എന്ന് നോക്കി പാത്രം വെച്ച് അരിഞ്ഞു വച്ച സാധനങ്ങൾ ഇട്ട് ഭക്ഷണം തയ്യാറാക്കുക ഭക്ഷണം തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഗ്യാസിൽ നിന്നും ഗ്യാസിൻ്റെ അവിടെ നിന്നും കുറച്ച് അകലം വിട്ട് നിന്ന് വേണം പാചകം ചെയ്യാൻ അല്ലെങ്കിൽ അത് ഭക്ഷണം പാകം ചെയ്യുമ്പോൾ ഏറ്റവും അപകടമാണ് ഗ്യാസിൻ്റെ അടുത്ത് നിന്ന് ഭക്ഷണം പാകം ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഗ്യാസിൻ്റെ അവിടെ നിന്നും കുറച്ച് അകലം വിട്ട് വേണം പാചകം ചെയ്യാൻ പാചകം ചെയ്തതിന് ശേഷം ഗ്യാസെല്ലാം ഓഫാണോ എന്ന് കൃത്യമായി ശ്രദ്ധിച്ച് ശ്രദ്ധിക്കേണ്ടതുണ്ട്